ഞാനെൻ്റെ കൃഷിസ്ഥലം നനയ്ക്കുന്നത് ടാപ്പുകൾ ടാപ്പുകളിൽ വരുന്ന വെള്ളത്തിനാലാണ് എനിക്ക് കുറച്ച് കൃഷി സ്ഥലമേ ഉള്ളു കൃഷി സ്ഥലത്ത് സർക്കാർ തരുന്ന ഇത്തിരി ടാപ്പ് വെള്ളത്തിലാണ് ഞാനെൻ്റെ കൃഷി നനയ്ക്കുന്നത് ആ വെള്ളം മാത്രം പോര എൻ്റെ രീതി സുരക്ഷിതമാണ് കാരണം ഈ ടാപ്പ് വെള്ളം എനിക്കാവശ്യത്തിനുള്ളത് മാത്രമാണ് സർക്കാർ തരുന്നത് എൻ്റെ കൃഷിസ്ഥലം നനയ്ക്കുന്നത് എൻ്റെ ഒരാവശ്യമാണ് അപ്പോൾ ഞാനത് നനയ്ക്കുന്നത് ന്നനയ്ക്കുന്നു സമൂഹത്തിനോ പ്രകൃതിക്കോ ഒരു നാശനഷ്ടവും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ കൃഷി നോക്കി നടക്കുന്നു ഞാൻ മഴവെള്ളം ഞാൻ എന്തായാലും സംഭരിക്കാറുണ്ട് മഴ മഴക്കാലത്ത് ഞാനെൻ്റെ ചെടികൾ നനയ്ക്കാറില്ല മഴയാണ് നനയ്ക്കുന്നത് മഴക്കാലത്ത് എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ ചെടികൾക്ക് വെള്ളം കുറേ ലഭിക്കും ടാപ്പ് വെള്ളത്തില് വെള്ളം കുറേ ലഭിക്കുകയില്ല അപ്പോൾ കുറേ ഉണങ്ങിപോകാറുണ്ട്